മലയാള ഭാഷയിൽ തനി മലയാളവും ഇത് സംസ്കൃതവും കലർന്നാണ് സംസാരിച്ചത് ഇന്ന് ഇപ്പോൾ കാലം പുരോഗമിച്ചപ്പം നമ്മൾ

തനി മലയാളം അല്ല ഇംഗ്ലീഷ് കലർന്ന ഒരു മലയാളമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പല സംസ്കാരങ്ങൾക്കും മാറ്റം ഉണ്ടാകുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് സംഭവം അല്ല ഇപ്പോൾ എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ ഉദാഹരണം കാർ ടി വി ഫ്രിഡ്ജ് മുമ്പ് നമ്മൾ അലമാര എന്നു പറഞ്ഞത് ഇപ്പം ഷെൽഫ് അങ്ങനെ ഒരു ഇംഗ്ലീഷ് സ്റ്റൈല് ഇപ്പം നമ്മുടെ മലയാള ഭാഷയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അത് മുതിർന്നവർ ആയാലും കുട്ടികൾ ആയാലും പിന്നെ സ്ക്കൂളിൽ തന്നെ ഈ ഇപ്പം തനി മലയാളം ഒന്നാമത് എന്നൊന്നും തോന്നുന്നില്ല പഠിപ്പിക്കുന്നത് അവിടെയും ഇംഗ്ലീഷും മറ്റ് ഭാഷകളും ഒക്കെ കൂട്ടികലർത്തി ആണ് സാറമ്മാര് പോലും പഠിപ്പിക്കുന്നത് ഇപ്പോ ആരും കുട്ടികളാരും സാറേ എന്ന് പോലും വിളിക്കാറില്ല ഇപ്പോൾ എല്ലാരും ടീച്ചർ മാഡം അങ്ങനെയാണ് വിളിക്കുന്നത് വീടുകളിൽ പണ്ട് അച്ഛാ അമ്മച്ചിന്നൊക്കെ വിളിച്ചെടത്ത് ഇപ്പോൾ മമ്മി ഡാഡി അങ്ങനെയാണ് നമ്മുടെ ആ പഴയ ഒരു മലയാളത്തിൻ്റെ ഒരു സംസ്കാരം മാറ്റം ഉണ്ടായി ഇംഗ്ലീഷിൻ്റെ അതിപ്രസരം മൂലം ഉണ്ടായ ചിലമാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് വരും തലമുറയിൽ ഇനി ഇത് കൂടിക്കൂടി വരാനാണ് സാധ്യത